ഇപ്പം നമ്മുടെ നാട്ടില് എവിടെയും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടനവധി എഴുത്തുകാരും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവര് അവരുടേതായ ശൈലികളിലും കാര്യങ്ങളിലും അവരുടേതായ രീതികളിലും ഒക്കെ ഫേമസാണ് അല്ല ഡിഫറൻറ്റ് ആയ രീതികളിൽ ഓരോ കാര്യത്തെ അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം എം ടി വാസുദേവനാണെങ്കിലും അതുപോലെ അടൂരാണെങ്കിലും ഒ എൻ വി കുറുപ്പാണെങ്കിലും അങ്ങനെ ഓരോരുത്തര് അവരവരുടേതായ രീതിയില് അവരുടേതായ ഒരു സ്ലാങ്ങിലും കാര്യങ്ങളിലും അവരുടേതായ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ട് വരികയും ഓരോ കാര്യങ്ങളെ ബോധവൽക്കരിപ്പിക്കുകയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണെങ്കിലും ഓരോരോ കൾച്ചറിനേയും കാര്യങ്ങളേയൊക്കെ മുന്നോട്ട് കൊണ്ട് വരുന്ന രീതിയില് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഓരോ വിധ തലമുറയ്ക്ക് അവരുടേതായ ഓരോ മുദ്ര പതിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും പഴയകാല കാര്യങ്ങളെ എടുത്ത് കാണിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ രീതിയില് ഓരോരോ സംസ്ക്കാരത്തേയും ഓരോരോ കൾച്ചറിനേയും ഓരോരോ രീതിയിലുള്ള ഇതും കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കവിതകളിലൂടെയും ഇപ്പം ഇതില് രചനകളിലൂടെയൊക്കെ ആയിട്ടാണെങ്കിലും ഓരോ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ട് വരാൻ വേണ്ടീട്ട് ഓരോരോ സ്റ്റെപ്പ് ബേസായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ട് വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്